ആ വൈദ്യുതിയുടെ അപകടങ്ങളെക്കുറിച്ച് ബോധവാനാണ് കാരണം നമ്മളെന്നും മിക്ക മിക്കപ്പോഴും നമ്മള് പ്രത്യേകിച്ചും മഴക്കാലങ്ങളിൽ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അതുകൊണ്ടുതന്നെ അതിനെക്കുറിച്ചു ബോധവാനാണ് ഇപ്പം നമ്മൾ എന്താ പറയുക ഭയങ്കര ശക്തമായ മഴയൊക്കെ ഉള്ളപ്പോഴാണെങ്കില് ഇടിയും മിന്നലുമുള്ളപ്പോൾ നമ്മള് വൈദ്യുപകരണങ്ങള് അതിൻ്റെ സ്വിച്ച് ഇതിൽനിന്നും പ്ലഗിൽ നിന്നും ഊരിയിടുകയും ആ സമയത്തത് അത് പ്രവർത്തിക്കാതെ പ്രവർത്തിപ്പിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുകയും അതുപോലെ തന്നെ നനവുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മള് വൈദ്യുതോപകരണങ്ങള് പ്രവർത്തിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ അത് അത് ചെരുപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നോക്കുക അതുപോലെ പിന്നെന്താ പറയുക ഇപ്പം നമ്മള് ജനറേറ്ററോ അങ്ങനെന്തെലുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമ്മൾ കഴിവുള്ളൊരു ഇലെക്ട്രിഷ്യനെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പിന്നെ അതിലുപരിയായിട്ട് ഇപ്പം നമ്മള് മഴക്കാലത്തിന് മുന്നെയായിട്ട് കെ എസ് ഇ ബീ യിൽ നിന്ന് ഇപ്പം ഈ വൃ വൃക്ഷങ്ങളൊക്കെ അതിനു ലൈൻ കമ്പി ഞാന്നുകിടക്കുന്ന വൃക്ഷങ്ങൾ അതൊക്കെയുണ്ടേൽ അതിൻ്റെ തലപ്പൊക്കെ വെട്ടാൻ വരുന്നുണ്ട് അപ്പോൾ അതിനോട് സഹകരിക്കുക പിന്നെ അതിറ്റൊരു തടയാന്നുവെച്ചുകഴിഞ്ഞാ ഇപ്പോൾ ലൈൻ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ മഴ വല്ലതും വല്ല വ്യക്ഷങ്ങളൊക്കെ വീണ് ലൈൻ കമ്പി പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊരു സാമാന്യബോധമനുസരിച്ചു അതില് തൊടാതിരിക്കാൻ ശ്രമിക്കുക നമുക്കറിയാം അതായത് വൈദ്യുതോപകരണങ്ങള് പ്രവർത്തിക്കുമ്പോൾ നമ്മളിതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് വേണം പ്രവർത്തിപ്പിക്കാനായിട്ട്